എനിക്ക് നല്ലവണ്ണം അച്ചാറിടാനും കേക്ക് ബേക്ക് ചെയ്യാനൊക്കെ പഠിക്കാൻ ആഗ്രഹമുണ്ട് അത്യാവശ്യം കുക്ക് ചെയ്യും പക്ഷേ കേക്കൊന്നും ഇതുവരെ ആയിട്ടും ബേക്ക് ചെയ്തിട്ടില്ല അപ്പോൾ പിന്നെ ചൈനീസ് ഡിഷ്ഷൊക്കെ ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ട് ഞാൻ ടി വിയിലൊക്കെ കാണുമ്പം ട്രൈ ചെയ്യാറുണ്ട് പക്ഷേ വിജയിക്കാറില്ല പലപ്പോഴും ഫ്ലോപ്പായി പോകാറാണ് ഇത് പിന്നെ നന്നായിട്ട് ഉണ്ടാക്കാൻ അച്ചാറുണ്ടാക്കാൻ ആഗ്രഹമുണ്ട് ബേക്കറി ഐറ്റംസുകൾ ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ട് അതേപോലെ തന്നെ പിന്നെ നമ്മുടെ ഇതാണ് കേക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ എനിക്കറിയില്ല ഞാൻ കുറേ യൂട്യൂബുകളൊക്കെ നോക്കി പക്ഷെ നമ്മുടെ കുക്കറിലൊക്കെ ഉണ്ടാക്കി നോക്കി അടാർ ഫ്ലോപ്പാവുകയാ ചെയ്തത് പിന്നെ ഞാൻ ശ്രമിക്കുന്നുണ്ട് ഓരോന്നുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ശരിയാകാറില്ല പലപ്പോഴും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയത് അച്ചാറൊക്കെ പിന്നെയും രസമുണ്ടായിരുന്നു പക്ഷെ കേക്ക് ബേക്ക് ചെയ്യൽ ഭയങ്കര അടാർ ഫ്ലോപ്പായി അത് ശരിയായില്ല ഫുൾ എന്താ പറയുക ശരിയാകാത്ത പോലെയായി